ടി വി പ്രോഗ്രാമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ന്യൂസ് ചാനലുകളിൽ വരുന്ന ചർച്ചകളാണ് അത് എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമെന്നുവെച്ചാൽ ഒരു ഒരു പ്രത്യേക കാര്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ നമുക്ക് അറിയാനും അതെല്ലാം നമുക്ക് താരതമ്യപ്പെടുത്താനും സാധിക്കും അപ്പോൾ അങ്ങനെയുണ്ടാകുന്നതുകൊണ്ട് നമുക്കാ ഒരു കാര്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രീതിയിലും നമുക്ക് അതിനെ ചിന്തിക്കാനും അതിലെ മോശങ്ങളെ മോശപ്പെട്ടകാര്യങ്ങൾ എന്തെല്ലാം ആണെന്നും നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും കാണാനും വിലയിരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ടി വി പ്രോഗ്രാമുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാർത്താ ചാനലുകളിലെ ചർച്ചകൾ തന്നെയാണ് മറ്റു ടി വി പ്രോഗ്രാമുകളായ സീരിയലുകൾ റിയാലിറ്റി ഷോകൾ എന്നിവയെല്ലാം ഒരു സമയ നഷ്ടമായാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ടുത്തന്നെ ഇതൊന്നും ഞാൻ കാര്യമായി കാണാറുമില്ല